സഹകരണ സ്ഥാപനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സഹരണ ബാങ്കുകളാണെങ്കിൽ കാർഷിക മേഖലയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് കാർഷിക മേഖലയില് ഒരു കർഷകൻ്റെ സ്ഥലങ്ങളും കൃഷിക്കാവശ്യമായ സ്ഥലങ്ങളൊക്കെ കണക്കിലെടുത്ത് കാർഷിക ലോൺ കൊടുക്കാറുണ്ട് സ്ഥലങ്ങളും പിന്നെ കൃഷി ചെയ്യാനുള്ള പച്ചക്കറികള് വിത്തുകളും തൈകളും ഒക്കെ കൊടുത്ത് കൊടുക്കാനായിട്ട് ആവശ്യമായ അല്ലെങ്കില് കൃഷി ചെയ്യാനായിട്ടാവശ്യമായ കാർഷിക ലോണുകൾ കൊടുക്കാറുണ്ട് പിന്നെ പ്രത്യേക തരം സബ്സിഡികൾ കൊടുക്കാറുണ്ട് കാർഷിക മേഖലയ്ല് ലഭ്യമാണ് പ്രത്യേക തരം സബ്സിഡികള് അങ്ങനെ സഹകരണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഒരു കർഷകനെന്ന രീതിയില് ഒരാൾക്കു നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അത് ഒരു സബ്സിഡി അല്ലെങ്കിലൊരു ലോണെന്നു പറയുന്നത് സാധാരണക്കാരനായൊരു കൃഷി അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ളൊരാൾക്ക് ഇതു വളരെ സഹായകദായകമായ കാര്യമാണ്